ഗ്രാമ പ്രദേശത്തുള്ള കർഷകർ അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മെയിൻ ആയിട്ട് ധന സഹായം അതായത് അതിപ്പം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ ഒക്കെ എടുക്കണമെങ്കില് നമ്മള് ഒരുപാട് അതിൻ്റെ പുറകെ ആയിട്ട് നടക്കണം പിന്നെ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചിലർക്കൊക്കെ സ്ഥലം വളരെ കുറവായിരിക്കും ചിലപ്പം ചിലര് പാട്ടം ഒക്കെ എടുത്തിട്ടായിരിക്കും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിന് നമ്മള് ധന സഹായമൊക്കെ തേടിപോകുമ്പോൾ അവര് നമ്മളുടെ ആധാരം കാര്യങ്ങള് സ്ഥലത്തിൻറ്റെത് എല്ലാം നോക്കും അതൊന്നും ഇല്ലാത്തവർക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് പിന്നെ എന്ന് വെച്ച് കാലാവസ്ഥ മാറ്റം അതൊരു വലിയ വെല്ലുവിളി ആണ് അതായത് മഴ കാലത്തു മഴ പെയ്യണം വേനൽ കാലത്ത് വെയില് ഉണ്ടാവണം അതാണ് കൃഷിക്ക് കൃഷിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൃഷിക്ക് വേണ്ടത് അപ്പം ഇതെല്ലാം അതൊക്കെ പിന്നെ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ കൃഷി നശിക്കാനുള്ളൊരു പിന്നെ ഇത് കാരണമാകും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കർഷകർക്ക് ഒരുപാട് പരിശീലനം ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കും മികച്ചതായിട്ട് രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റും അപ്പം അത് ചിലപ്പം കർഷകർക്ക് പരിശീലനം ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നതൊക്കെ കർഷകർ അനുഭവിക്കുന്ന വെല്ലുവിളികളാണ്